ആ എനിക്ക് കൂടുതലും ചട്ടികൾലൊക്കെയാണ് അതായത് ഗാർഡൻ ചെയ്യാനൊക്കെ ഇഷ്ട്ടം കാരണം അതാണ് ഭംഗി നമ്മളീ മണ്ണില് അതായത് ഇപ്പൊന്തൊക്കെയാന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെയൊക്കെ മിറ്റം എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഇന്റർലോക്ക് മിറ്റമാണ് അപ്പോൾ കൂടുതലായിട്ടും ചട്ടികളിലും കാര്യങ്ങളിലൊക്കെ വെക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കാര്യങ്ങളൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് പിന്നെ എനിക്ക് കൂടുതലും ചട്ടികളിലും കാര്യങ്ങളിലൊക്കെയാണ് വെക്കാനിഷ്ട്ടം അപ്പം ചട്ടികളൊക്കെ പൂക്കളൊക്കെ പൂത്തുലഞ്ഞ് കിടക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര ഒരു ഭംഗിയാണ് അപ്പോൾ എനിക്ക് കൂടുതലായിട്ടും ഏറ്റവും കൂടുതലായിട്ട് ചട്ടി മേടിക്കുന്നത് ചട്ടി അല്ലെങ്കിൽ നമ്മള് കവറില് ചട്ടിന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് റേറ്റ് കാര്യങ്ങളൊക്കെ ആവുന്നത് കൊണ്ട് കവറ് ചിലതൊക്കെ കവറിലാണ് നടുക അതായത് പച്ചക്കറികളുടെ കാര്യങ്ങളൊക്കെ വലിയ വലിയ കവറ് മേടിച്ചിട്ടാണ് നാടാറ് പക്ഷെ പൂച്ചെടികള് അതായത് റോസാ കാര്യങ്ങളക്കെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത്യാവശ്യം വലിയ ചട്ടി മേടിച്ചിട്ടാണ് നാടാറ് അതാണ് എനിക്കിഷ്ടവും അപ്പമെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ചട്ടികളിലൊക്കെ ആകുമ്പോൾ നമുക്ക് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് അപ്പം അത് ആസ്വദിക്കാൻ തന്നെ ഒരു രസ്സമാണ് അപ്പമെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറമേന്ന് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആയിരിക്കും ഈ ചട്ടികളും കാര്യങ്ങളിലൊക്കെയാണ് വെയ്ക്കുന്നതെങ്കിൽ അപ്പം എനിക്ക് കൂടുതലും അങ്ങനെയാണിഷ്ടം അപ്പം ഞാനൊരുപാട് ചട്ടി ഇനിയും മേടിച്ച് വച്ചിട്ടുണ്ട് കൂടുതല് കൂടുതല് ചെടികള് വെട്ടി വെട്ടി അതായത് വലിയ വലിയ ചെടികളൊക്കെ ആയത് വെട്ടി വെട്ടി നടാൻ വേണ്ടി ഞാൻ മേടിച്ച് വച്ചിട്ടുണ്ട്